നടന്നോണ്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു ബിസിനെസ്സ് തുടങ്ങണെങ്കിത്തന്നെ നല്ല ബുദ്ധിമുട്ട് ആയിരിക്കും അപ്പോൾ പൈസ പൈസ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ്സിന് ബിസിനെസ് തുടങ്ങണംന്നുള്ളൊരു ചിന്ത വരണെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ പൈസ വേണം അല്ലെങ്കിൽ പൈസ നമുക്ക് എവിടെന്നെങ്കിലും നേടണത് അതായത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോ അങ്ങനെന്തെങ്കിലുണ്ടെങ്കി മാത്രേ നമുക്ക് ബിസിനസ്സ് തുടങ്ങാൻ പറ്റുളളൂ ഇപ്പോൾ ചെറുകിട വ്യവസായോണ്ട് വൻകിട വ്യവസായോണ്ട് അപ്പോൾ ചെറുകിട വ്യവസായം ആണെങ്കിത്തന്നെ നമുക്ക് പൈസ കയ്യില് അയിനനുസരിച്ചുള്ള പൈസ കയ്യില് വേണം അതുപോലെത്തന്നെയാണ് വല്യ ബിസിനെസിനും അതിനനുസരിച്ചുള്ള മൂലധനം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനെസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു